വളരെ മോശം എന്ന് പറഞ്ഞൊരു പ്രൊഡക്ട് ഞാൻ ഇത്രയും നാളായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഈ പ്രൊഡക്ട് അങ്ങനത്തെയാണ് ഇപ്പം നമുക്കൊന്ന് ഈ കിടക്കയിലൊന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല ഒന്നു ഇരിക്കാൻ പോലും നല്ലൊരു സുഖമില്ല ഒരു ഭയങ്കര ഒരു ചകിരി പോലെയാണ് ഇത് കാണുന്നത് ഒട്ടും തന്നെ ഒരു സോഫ്റ്റ്നസ്സ് എന്നു പറയാൻ പറയാൻ പോലും തന്നെ ഇല്ല നമ്മൾ ഇരിക്കുമ്പോൾ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഇതിന്റെ മേലെത്തന്നെ വേറൊരു പുതപ്പ് നമ്മള് കട്ടിയിൽ ഇട്ടിട്ടാണ് കിടക്കുന്നത് കാരണം അത്രയ്ക്ക് പോലും കിടക്കാൻ പറ്റുന്നില്ല ഭയങ്കര മേല് വേദനയാണ് ബോഡി പെയിൻ വളരെയധികമുണ്ട് മക്കളൊന്നും അങ്ങനെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ശരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ചൂട് പൊന്തുകയാണ് പിന്നെ നമ്മളിപ്പോൾ പൈസ കൊടുത്ത് മേടിച്ചതിന്റെ ഒരു ഗുണവും തന്നെ ഇന്ന് ഈ പ്രൊഡക്ടിന് കിട്ടുന്നില്ല തലയിണയൊക്കെ ആണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ലാത്ത തലയിണയാണ് ഒട്ടും പറ്റാത്ത രീതിയിലാണ് ഒന്നും ഒരു ഒന്ന് നന്നായിട്ടൊന്ന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രൊഡക്ടാണ് ഇത് ഒട്ടും തന്നെ വളരെ മോശമായൊരു പ്രൊഡക്ടാണിത് ഒന്നിനും കൊള്ളില്ല പൈസേന്റെ ഒരു ഗുണവും തന്നെയില്ല ഇതിന്